ഹലോ ഗുഡ് മോണിങ് ആരാണ് ആന്ന് ആരാണ് സംസാരിക്കുന്നത് ആ പേരെന്തുവാണ് പേരെന്തുവാണ് ഏത് ക്ലാസ്ലാ ഏത് ക്ലാസ്ലാ പഠിക്കുന്നത് ഏയ്ത്തിൽ ആ ഏ സ്കൂളാ നമ്മളെ സ്കൂള്

ആണോ ആ ഇല്ലല്ല്യോ ആ മോൾക്ക് എന്നാണ് ഇനി അവധി വരുന്നത് എഴുതാനുണ്ടപ്പോൾ ആ ക്ലാസ്സിൽ സബ്മിറ്റെ ചെയ്യാനുണ്ടോ ആ ഇഷ്ടമാണോ നോവലൊക്കെ വായിക്കുന്നയൊക്കെ ഇഷ്ടമാണോ ആ ആ സ്വർണ്ണത്തിനോടൊക്കെ ഒത്തിരി ഇഷ്ടമാണോ ആ ആ നല്ല ആ ഞാൻ വായിച്ചിട്ടുണ്ട് തകഴി ആ ആ പഠിക്കാനുണ്ടോ ഇപ്പം ഈ വർഷം പഠിക്കാനുണ്ടോ അച്ഛാ ആ അവലോകനം എഴുതാനുണ്ട് ആ പിന്നെ അക്കൗണ്ടക്കെ ഉണ്ടോ ഇതിനകത്ത് ലൈബ്രറീ അവിടെ ആ ലൈബ്രറീലക്കെ പോവാറുണ്ടോ അവിടെ അവിടില്ലേ ഓ ആ ഉടനെ സബ്മിറ്റ് ചെയ്യണമല്ലോ ആ ആ ആ ആ ആ ലൈബ്രറീലുണ്ട് ആ അപ്പോഴൊരു കാര്യം ചെയ്യുക അടുത്ത ആഴ്ച്ച സമയം പോലെ വരുക എന്നിട്ട് എന്നെ വന്ന് കാണണം കണ്ട് നമുക്ക് നേരെ എങ്കിൽ ലൈബ്രറി ചെല്ലാൻ പറ്റത്തില്ല നമുക്കവിടെ പേരും സ്കൂൾൻ്റെ പേരക്കെ എഴുതിയാലേ നമുക്ക് തരാൻ പറ്റത്തുള്ളു നമുക്ക് സ്കൂളിൽ ചോദിച്ച് കാരണം നമ്മൾ പുറത്തൂന്ന് വരുന്നൊരു കുട്ടിയല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ഇവിടുത്തെ എച്ചെ എമ്മിനെക്കണ്ട് ആ ആ ആ ആ ഉണ്ട് നമ്മളെ ലൈബ്രറീലെല്ലാം അവൈലബിളാണ് കേട്ടോ ആ നമ്മളെ നമ്മുടെ ലൈബ്രറി വലിയ ലൈബ്രറിയല്ലേ അപ്പം എല്ലാ പുസ്തകങ്ങളും അപ്പോഴെന്ത് ആന്നേലും നമ്മൾ വായന അതേറ്റവും വലിയൊരു കാര്യമല്ലേ എഴുത്തും വായനയെന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഭാഷയെ നമ്മൾ ഒരിക്കലും താഴ്ത്തിക്കാണാതെ അല്ലേ അതുകൊണ്ടങ്ങനക്കെ വരുന്ന കുട്ടികളെ നമ്മളൊത്തിരി ആ ആ ആ ആ

ചെമ്മീൻ സിനിമ കണ്ടായിരുന്നോ ചെമ്മീൻ സിനിമയക്കെ കണ്ടിട്ടുണ്ടോ ആണോ ആ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ പഴയ സിനിമയൊക്കെ ആ കാണണം ഇപ്പോഴത്ത തലമുറ പഴയ സിനിമകളൊന്നും കാണത്തില്ല ഇപ്പോഴത്തെ എല്ലാ അടിച്ച് പൊളി ആ ആ അപ്പോൾ മോളൊരു കാര്യം ചെയ്യ് അടുത്ത ആഴ്ച്ച വാ ഞാൻ വിളിക്കാം ഇവിടെ ചോദിച്ചിട്ട് വിളിക്കാം കേട്ടോ അപ്പോൾ വാ ആ ആ ആ ഞാനതാണ് പറഞ്ഞത് എച്ചെ എമ്മിനോട് ചോദിച്ചിട്ട് ഞാൻ ക കടപ്പുറത്തുന്ന് വരുന്ന കുട്ടിയല്ലേ അതുകൊണ്ട് എച്ചെ എമ്മിനോട് ചോദിച്ചാട്ട് ഞാനങ്ങോട്ട് വിളിക്കാം ഈ നമ്പര് തന്നാണോ തിരിച്ച് വിളിച്ചാൽ കിട്ടുമോ ആ ആ ഫോണിപ്പോൾ ആ അത് തന്നെ ഫോണമ്മേടേൽ കാണുമല്ലോ അല്ലേ ആ ആ ആ ആ അപ്പോൾ ഭാവീൽ നല്ലൊരു മലയാള അദ്ധ്യാപികയായിട്ട് വരട്ടേട്ടോ ആ ഓക്കെ